ഹലോ ഗുഡ് മോർണിംഗ് സാജൻ സാറല്ലേ ഞാന് എന്റെയൊരു എന്റെയൊരു കൊച്ചിനെ പഠിപ്പിക്കാൻ വേണ്ടി വിടാനായിരുന്നു അപ്പോള് പാട്ട് പാട്ടു പഠിപ്പിക്കാൻ വിടാനായിരുന്നു അപ്പം അവിടുത്തെ ഫീ സ്ട്രച്ചറൊക്കെ എങ്ങനെയാണെന്ന് ഒന്ന് പറഞ്ഞാല് കൊള്ളായിരുന്നു അല്ല വെസ്റ്റേൺ മ്യൂസിക്ക്സ് ഒക്കെയുണ്ടെങ്കില് അത് ഇത്തിരി കൂടെ നല്ലതായിരുന്നു അപ്പോള് അവർക്ക് ഈ കോളേജിനെയൊക്കെ ബേസ് ചെയ്ത് അവിടെപ്പോയി പാട്ടൊക്കെ പാടി ഒന്ന് ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോള് ഒന്ന് എങ്ങനെയുമൊന്ന് പഠിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആ അപ്പോള് ഒരു സ്റ്റുഡന്റിനാണോ സാറേ ഇപ്പം അയ്യായിരം രൂപ വരുന്നത് ആ ഓക്കേ അപ്പോള് എൻ്റെ ഡാൻസ് എൻ്റെയൊരു ഒരു മോളുകൂടെയുണ്ട് അപ്പോള് മോളെക്കൂടെ പഠിപ്പിക്കാൻ വിടാമല്ലോയെന്ന് ആലോചിക്കുകയായിരുന്നു അപ്പോള് ഡാൻസിന് ഞാന് വേറെയൊരു സ്ഥലം തിരക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോള് ഇവിടെ ഡാൻസ് ഉണ്ടോ സാറേ അപ്പോള് അതിനെന്താണ് സാറേ ഫീസ് സ്ട്രക്ചർ വരുന്നത് എത്ര രൂപ വരും എത്ര രൂപയാണ് സാറേ സോറി സാറേ ഏഴു രൂപയോ ഓക്കേ ഓക്കേ ഓക്കേ രണ്ടും രണ്ടായിട്ട് എടുക്കുകയാണെങ്കില് ഒരു പത്തു രൂപ വരുമായിരിക്കുമല്ലേ ആ അപ്പോള് ഞാൻ രണ്ടും ഒന്നിച്ചെടുക്കാൻ നോക്കാം സാറേ ആണല്ലേ ആണല്ലേ ഞാന് നോക്കട്ടെ സാറേ ഞാനിപ്പം എൻ്റെ കുഞ്ഞിപ്പം ഇതാണ്ടെ മരിയൻ കോളേജ് കുട്ടികാനത്താണ് പഠിക്കുന്നത് അപ്പോള് അവിടെ ഇവിടെ നിന്ന് ട്രാവലിംഗ് ഡിസ്റ്റൻസ് സാറിന് എവിടെയായിട്ടാണ് എക്സാക്ട് ലൊക്കേഷനൊക്കെ എവിടെയായിരുന്നു സാറേ മാമലയല്ലേ ഓക്കേ ഓക്കേ അപ്പോള് ഇവിടെ നിന്ന് നമ്മുടെ ഈ പീരുമേട് നിന്ന് എത്ര കിലോമീറ്ററൊക്കെ കാണും ഒരു ആവറേജ് പറഞ്ഞാല് ഒരു പത്തു പതിനഞ്ച് കിലോമീറ്ററൊക്കെ കാണുമോ പതിനഞ്ച് കിലോമീറ്ററൊക്കെ കാണുമല്ലേ ഓക്കേ ഓക്കേ അപ്പം ഞാൻ നോക്കട്ടെ സാറേ ഇപ്പം ഇതിന് ഫീസ് സ്ട്രക്ച്ചറെല്ലാം അറിഞ്ഞില്ലേ അപ്പം അതുകഴിഞ്ഞിട്ട് ഞാനിനി ഓരോരുത്തരോട് വിളിച്ചുചോദിക്കട്ടെ ഞാനിപ്പം എൻ്റെ നെയ്ബർ ഉണ്ട് നെയ്ബറിനെ കൂടെ ചോദിച്ചുനോക്കട്ടെ അപ്പോള് നെയ്ബേർസിനാകുമ്പോള് ഒരു കൂടെ കൂട്ടിയാലൊരു ഫീ പേയ്മെൻറ്റ് കുറച്ച് കുറയ്ക്കാൻ പറ്റുമോ അല്ലല്ല നമ്മുടെ ഇത്തിരി കുറച്ചുതരാമോ മീൻസ് ഇപ്പം ഞാനിപ്പം എൻ്റെ രണ്ടു കുട്ടികള് വരും ഒരു ബോയും ഗേളും മതി ആ ഒരു ഇപ്പോഴൊരു ഫൈവ് തവുസൻഡ് പറഞ്ഞത് ഒരു ത്രീ തവുസൻഡ് ടൂ ഹണ്ട്രെഡിലൊക്കെ ആക്കിയായിരുന്നുവെങ്കില് ഇത്തിരി മയമായിരുന്നു ആ ഓക്കെ അപ്പോള് രണ്ടുപേരെ കൂടെ ചേർക്കുകയാണെങ്കില് അപ്പോള് മാസം എഴു രൂപ കുറഞ്ഞിപ്പം ഞാനിപ്പോള് ഒരാളുടെ നാല് നാല് രൂപ അടച്ചാല് പോരെ സാറെ ഞാന് അപ്പോള് എൻ്റെ നെയ്ബറിനെയും കൂടെ ഞാൻ അവിടെ രണ്ടു കുട്ടികളാണ് രണ്ട് ആണ്പിള്ളേരാണ് അപ്പോള് അവർക്ക് പാട്ട് പഠിക്കാൻ വേണ്ടി വിടാനായിരുന്നു ആ ഓക്കെ ഓക്കെ അണല്ലേ ഓക്കെ ഓക്കെ സാറ്റർഡേ സണ്ടേ സാറെ അപ്പോള് വീട്ടില് വന്ന് പഠിപ്പിക്കുമോ കാര്യം ചിലപ്പോള് അപ്പോള് അതിൻ്റെ അതിൻ്റെ എക്സ്ട്രാ ഫീസു കൂടി തരാമായിരുന്നു ആ ഓക്കെ സാറെ ഞാൻ ചോദിച്ചുവെന്നേയുള്ളൂ ഞാന് അപ്പോള് അവിടെ നിന്ന് ഇവിടെ നിന്ന് ഇപ്പം ഞാനങ്ങ് ഗൾഫില് പോകും തിരിച്ച് അപ്പം പിള്ളേരെ അങ്ങ് അമ്മ കൊണ്ടുവിടേണ്ടെ അങ്ങുവരെ അപ്പോള് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാം സാറെ കുഴപ്പമില്ല ഞാൻ ഇനിയും പിന്നെയായാലും ആണല്ലേ ഓക്കെ ഓക്കെ അണല്ലേ ആ ആ

ആ ഓക്കെ സാറെ ശരി എന്നാല് ശരി സാറെ എന്നാല് ഞാനൊന്ന് എല്ലാമൊന്ന് നോക്കിയിട്ടൊന്ന് ഞാൻ പറയാം ശരിയെന്നാല് ഓക്കെ